എനിക്ക് ഇപ്പോൾ ഒത്തുപോകാനൊരു ആളുമായിട്ടൊരു ബുദ്ധിമുട്ട് നേരിട്ടുണ്ടായിരുന്നു കാരണം എന്നു വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പണിക്ക് പോയിട്ടുണ്ടായിരുന്നു അതായതൊരു കെട്ടു പണിയായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വല്ലപ്പോഴുമൊക്കെയാണ് പ പണിക്ക് പോകുന്നത് അപ്പം പഠിക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് ചെറിയൊരു ക്യാഷിനൊക്കെ അത്യാവശ്യം വരുന്ന സമയത്താണ് ഞാനിങ്ങനെയുള്ള ജോലികൾക്കും കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് അപ്പോൾ അങ്ങനെ പോയപ്പോൾ അവിടുത്തെ മേശിരി എന്നോട് മോശമായ രീതിയിലൊക്കെ പെ പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നേരിട്ടുണ്ടായിരുന്നു അതായത് പല രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നേരിട്ടിട്ട് ഞാൻ ആ പുള്ളീനോട് ഞാൻ പറഞ്ഞു നാളെ തൊട്ട് ഞാൻ വരുന്നില്ല പണിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ പുള്ളി പറഞ്ഞു കുഴപ്പല്ല മോനെ ഞാനിപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് ക്ഷമയൊക്കെ ചോദിച്ചു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു പിറ്റേ ദിവസം ഞാൻ ആ പണിക്ക് തന്നെ ഞാൻ പോയി എന്നിട്ട് ലാസ്റ്റ് പുള്ളി പറഞ്ഞു ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല നീ എന്തായാലും പണിക്കു പോരെ ഞാൻ അങ്ങനെയൊന്നും പറയില്ലായെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ പിന്നെയും പണിക്ക് പോകാനുള്ള ഒരു ഇത് ഉണ്ടായത് പിന്നെ കുഴപ്പമില്ല പ്രശ്നം നല്ല രീതിയിൽ പരിഹരിച്ച് ഞാൻ മുന്നോട്ടു പോയി